ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതി ആരോഗ്യ മേഖലയെ വളരെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഉദാഹരണത്തിനു പണ്ട് കാലത്ത് ആളുകൾക്കെന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുകയോ എല്ലുകൾ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വൈദ്യൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അദ്ദേഹം രോഗ നിർണ്ണയം അല്ലെങ്കിൽ പൊട്ടൽ കണ്ടു പിടിച്ച് അതിൻ്റെ ചികിത്സ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അത് ടെക്നോളജിയിലൂടെ അതായത് എക്സ് റേ മെഷീൻ്റെ കണ്ടുപിടുത്തത്തിനു ശേഷം എല്ല് പൊട്ടൽ ഡീറ്റൈൽഡ് അത് കൃത്യമായ ഒര് ഇമേജ് നമുക്ക് എടുക്കാൻ സാധിക്കുകയും അതുപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു ചികിത്സ നിർണ്ണയിക്കാൻ ഡോക്ടർസിനു സാധിക്കുകയും ചെയ്യും അതു സാങ്കേതികമായി ചികിത്സയെ വളരെയധികം സഹായിക്കുന്നൊരു ടെക്നോളോജിയാണ് എക്സ് റേ മഷീൻ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ കണ്ടു പിടിക്കുന്ന ടെക്നോളോജികൾ സെൻസറിലൂടെ പല കമ്പനികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആളുകൾക്കു വീട്ടിൽ വെച്ചു തന്നെ സ്വന്തമായി ഇതൊക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള മരുന്നോ അല്ലെങ്കിൽ ആ ഡോ ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടോ ഇല്ലയോയെന്ന് സ്വന്തമായി അറിയാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് നേരത്തെയാണെങ്കിലിത് ആശുത്രിയിൽ പോയി അവിടെ വരിയിലൊക്കെ നിന്നു ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പം ടെക്നോളജിയിലൂടാൾക്കാർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സ്ത്രീകൾക്കി പ്രഗ്നെന്സി ടെസ്റ്റ് ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ടെക്നോളജിയിലൂടെ ഇപ്പം വളരെ സുഗമമായി തന്നെ അറിയാൻ പറ്റുന്നതാണ് പിന്നെ ഈ കാലഘട്ടത്ത് കോവിഡ് മഹാമാരിയൊന്ന് മനുഷ്യരാശിയെ പിടിച്ചുലച്ചപ്പോൾ ഈ കോവിനെന്നു പറയുന്ന ആപ്പ് നമ്മുടെ ഇന്ത്യയിലെ ഗവണ്മെൻറ്റ് റീലീസ് ചെയ്യുകയും അപ്പം അതുവഴി കോവിഡ് കാലത്ത് നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെപ്പറ്റിയെല്ലാവർക്കും ഒരു അവബോധം സൃഷ്ടിക്കാനും കഴിഞ്ഞു ആ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു കൂട എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എങ്ങനെ ആൾക്കാരുമായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങ് വന്ന് ഒരു പക്ഷേ കോവിഡ് പോസിറ്റീവായാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരാപ്ലിക്കേഷൻ വഴി എല്ലാവർക്കും എല്ലാ ജന ജനങ്ങൾക്കെല്ലാം വളരെ സുലഭമായിത്തന്നെ ഈ ഒരു ആശയങ്ങളെല്ലാവർക്കും എത്തിക്കാൻ പറ്റി അത് വളരെ രീതിയിൽ ഗവണ്മെൻറ്റിനെയും പിന്നെ ആൾക്കാരുടെയും സേഫ്റ്റിക്കും ഹെൽത്ത് ആരോഗ്യത്തിനും സഹായിച്ചിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കോവിൻ പിന്നെ വാക്സിനേഷൻ സെൻറ്ററിൻ്റെ സെൻറ്ററുകൾ എവിടെയൊക്കെയാണെന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്പ്ളിക്കേഷനിലൂടെ സാ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ടെക്നോളജിയിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്ത കുറേ കാര്യങ്ങളാണ്